ഹലോ ഹലോ കേൾക്കുന്നില്ല

എൻ്റെ പി സി അടിച്ച് പോയിരിക്കുകയാണ് അതൊന്ന് ശരിയാക്കണമായിരുന്നു ഞാൻ ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്നാണ് തോന്നുന്നത്

ഞാൻ ഇത് കടക്ക കടക്കയിൽനിന്നാണ് എടുത്തത് കൊല്ലം കടക്ക അടുത്തുള്ള സെൻ്ററീന്നാണ് എടുത്തത്

ആ പ്രശ്നം അത് ഓണ് ആക്കുമ്പോൾ ഡിസ്പ്ലേ വർക്ക് ആവുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ആണ് കാണിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓണ് ആവുന്നതും ഇല്ല

അതെ അതെ അതെ ആ അതെ മുമ്പ് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇത് ശരിയാക്കാൻ ഇവിടെ വന്ന് ശരിയാക്കുമോ അത് അടുത്തുള്ള സെൻ്ററിലേക്ക് കൊണ്ട് വരണോ

അടുത്തുള്ള സെൻ്ററ് എവിടെയാണ് എൻ്റെ സ്ഥലം മടത്തറ ആ മടത്തറ മടത്തറ ചടയമംഗലം കൊട്ടിയം ചടയമംഗലം എനിക്ക് ചടയമംഗലം ആണ് അടുത്തെന്ന് തോന്നുന്നു എനിക്ക് സ്ഥലം അറിയാൻ വയ്യ

അപ്പം അവിടെ കൊണ്ടുപോയാലേ ശരിയാക്കാൻ പറ്റത്തുള്ളോ വീട്ടിൽ ശരിയാക്കാൻ പറ്റുമോ ആ ഒന്ന് ഓക്കെ ഓക്കെ ഓക്കെ ചെയ്യാം ചെയ്യാം ആ ഇത് ആ വരാം വരാം വരാം അത് ബാക്കിലാണോ എവിടെ എങ്ങനെയാ ഊരേണ്ടത് എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല ആ ആ ആ ആ ആ വരാം വരാം വരാം ഓക്കെ അത് ആ ഊരി എടുത്തു ആ ഓക്കെ ഊരി ഊരി ഊരി അറിയത്തില്ല ഒന്ന് ഗൂഗിള് നോക്കാം ഓക്കെ ഓക്കെ ഓക്കെ അത് ഓക്കെ റാം അത് ഓ ക്ലീൻ ചെയ്ത് എടുക്കണം ആ ഓക്കെ ഊരിയിട്ട് അത് ക്ലീൻ ചെയ്ത് എടുക്കണം അത് എങ്ങനെ തുണി വച്ചോ ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അത് ഞാൻ തുടച്ചെടുത്തു ഓക്കേ ഓക്കേ തുടച്ചെടുത്ത് ഇല്ല ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കുറച്ച് പൊടിയുണ്ടായിരുന്ന് അത് ഞാൻ തുടച്ചായിരുന്ന് അത് തിരിച്ച് അതിനകത്ത് വെക്കാനാണോ ഇത് നോക്കാതെ വേറെ എന്തോ നമ്മൾ ചെയ്യണോ ഇരുന്ന പോലെ ആണോ അതെ വേറെ വല്ലതും ആ ഓക്കെ ഓക്കെ ഓക്കെ അത് വെച്ചു വെച്ചു വെച്ചു വെച്ചു ആ ഓക്കെ ഇനി അത് ഒന്ന് അത് തിരിച്ചടച്ചിട്ട് മറ്റേ സ്ക്രൂ ഇട്ട് വെക്കാനല്ലേ ഓക്കെ ഓക്കെ ഓക്കെ സ്ക്രൂ ഓക്കെ ചെയ്തു ചെയ്തു ചെയ്തു ചെയ്തു ആ വെയിറ്റ് വെയിറ്റ് വെയിറ്റ് വെയിറ്റ് ബ്രോ ഇത് ഓണ് ആക്കിയിട്ട് ഒന്നും വരുന്നില്ലലോ ഇത് പഴയത് കണക്കാ ആ ഓണ് ആക്കിയപ്പം ഫുൾ ബ്ലാക്ക് ആണല്ലോ കാണിക്കുന്നത് ഡിസ്പ്ലേ ഈ ഇടയ്ക്കിടയ്ക്ക് വെട്ടം വരുന്നുണ്ട് പക്ഷെ അത് ഓണ് ആവുന്നു ഓഫ് ആവുന്നു അങ്ങനെ എന്തോ പ്രശ്നം

അപ്പം എനിക്ക് തോന്നുന്നു അടുത്തത് ചടയമംഗലമാണ് അടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിൽ അങ്ങോട്ട് പോവാം പോവാമായിരുന്നു

ഓക്കെ ഓക്കെ പോവാം പോവാം ഓക്കെ ആ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ ഓക്കെ താങ്ക് യൂ